ഞാൻ പൊതുവെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ കൂട്ടായി ഇള്ള യാത്രകള് ചെയ്യല് കുറവാണ് കൂടുതലായിട്ടും സോളോ ട്രിപ്പ്കളാന്ന് നടത്താറുള്ളത് പിന്നെ ചില സന്ദർഭങ്ങൾല് സുഹൃത്തുവായിട്ട് പല യാത്രകളും നടത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ ജോൽ ജോലി ചെയ്തിരുന്ന ആ ഒര് സുധാകരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളുടെ കൂടെ പല ട്രിപ്പുളും ഞാന് നടത്തിയിട്ടുണ്ട് വയനാട് ഗുണ്ടൽപ്പേട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങള് ബൈക്ക് ഇന് യാത്ര ചെയ്തിട്ടുണ്ട് ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ പെര് മലമ്പുഴ തൃശ്ശൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ബൈക്കില് യാത്ര ചെയ്തിട്ടുണ്ട് പിന്നേ ഇതിന് പുറമെ ആരുവില്ലെങ്കിലും ഇമ്മേ പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട് മിനി ഊട്ടി കോട്ടക്കുന്ന് നിലമ്പൂര് ടീക്ക് മ്യൂസിയം മംഗളാകുന്ന് കനോലി പ്ലോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലും അരുളായി നെട്ങ്കയം തുടങ്ങിയ സലങ്ങൾളൊക്കെ യാത്ര ഒറ്റക്ക് ബൈക്കില് നടത്തിയിട്ടുണ്ട് കൂടുതൽ താൽപ്പര്യം ബൈക്കിന് യാത്ര ചെയ്യുന്നതാണ്